കേരളത്തിൽ ഉടനീളം നിരവധി പത്രങ്ങളും വാർത്താ ചാനലുകളും ലഭ്യമാണ് ഇന്ന് പത്രങ്ങളെന്ന് പറയുമ്പോൾ മലയാളത്തിലായിരുന്നാലും ഇംഗ്ലീഷ് ഹിന്ദി മുതലായ ഭാഷകളിലുള്ള പത്രങ്ങളും ഇവിടെ ലഭ്യമാണ് ഞാൻ പ്രധാനമായിട്ടും ഇംഗ്ലീഷ് പത്രമാണ് വായിക്കുന്നത് മലയാളത്തിലുള്ള പത്രങ്ങളും ലഭ്യമാണ് അതായത് മലയാള മനോരമ മാതൃഭൂമി ദേശാഭിമാനി തുടങ്ങിയവയിലുള്ള പ്രധാനപ്പെട്ട മലയാള പത്രങ്ങളാണ് ഹിന്ദു ടൈംസ് ഓഫ് ഇന്ത്യ മുതലായ ഇംഗ്ലീഷ് പത്രങ്ങളും ഇവിടെ ലഭ്യമാണ് ഈ പത്രത്തിൽ ഞാൻ പ്രധാനമായിട്ടും നോക്കുന്നത് എഡിറ്റോറിയൽ പേജുകളാണ് സമൂഹത്തിൽ നടക്കുന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളെക്കുറിച്ച് ആധികാരികമായി അതിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ സംഭവത്തിൻ്റെ പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള വശങ്ങൾ ഒക്കെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും അതുവഴി നമ്മുടേതായ ഒരു അഭിപ്രായം ആ ഇഷ്യുവിൽ നമുക്ക് ഉരിത്തിരിച്ചെടുക്കാൻ കഴിയുന്നുണ്ട് രീതിയിലുള്ള രീതിയില ഉള്ള ആ രീതിയിലാണ് എഡിറ്റോറിയലുകൾ എഴുതിയിട്ടുള്ളത് മാത്രമല്ല പിന്നെ ഞാൻ സ്പോർട്സ് പേജ് നോക്കാറുണ്ട് അവിടെ ക്രിക്കറ്റ് ഫുട്ബോള് തുടങ്ങിയ സ്പോർട്സുമായി ബന്ധപ്പെട്ട വാർത്തകൾ എനിക്ക് വളരെയധികം ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ അത് വായിക്കാറുണ്ട് പിന്നെ ആദ്യ പേജ് പത്രത്തിൻ്റെ ആദ്യ പേജിലുള്ള പ്രധാനപ്പെട്ട പല വാർത്തകളും ആണ് അതിനെക്കുറിച്ച് ഞാൻ വായിക്കാറുണ്ട് പിന്നെ ഞാൻ ഉള്ളിലേയ്ക്ക് പത്രത്തിൻ്റെ ഉള്ളിലേയ്ക്ക് പോകുമ്പോൾ വിവിധ രാജ്യങ്ങളിൽ നടക്കുന്ന ലോക വാർത്തകൾ രാജ്യങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളറിയാൻ വേണ്ടി ലോക വാർത്തകളാണ് കാണാറുള്ളത് പിന്നെ ടിവിയിലേക്ക് വരുമ്പോൾ ഞാൻ മെയ്നായിട്ടും അ ടിവിയിൽ ഞാനും എന്റെ കുടുംബവും കാണുന്നത് വെച്ചാൽ വാർത്തയാണ് അരമണിക്കൂർ ഉള്ള ഒരു ദിവസത്തിൽ എല്ലാ സംഭവങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അവതരിപ്പിക്കുന്ന വാർത്തകളാണ് അത് മാത്രവുമല്ല സംവാദങ്ങൾ കാണാറുണ്ട് ഓരോ ഇഷ്യുവിനെക്കുറിച്ചും വിവിധതരത്തിലുള്ള വിവിധ മേഖലകളിലുള്ള ആളുകൾ സംവദിക്കുന്നത് വാർത്താ ചാനലുകൾ കാണാറുണ്ട് പ്രധാനമായിട്ടും ഏഷ്യാനെറ്റ് ന്യൂസ് മലയാള മനോര മനോരമ ന്യൂസ് തുടങ്ങിയ ചാനലുകളാണ് കാണാറുള്ളത് അതിനു പുറമേ ലോക വാർത്തകൾ കാണുന്നത് എനിക്കിഷ്ടമാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന വാർത്തകളെക്കുറിച്ച് അറിയാൻ ലോക വാർത്തകൾ കാണാറുണ്ട് മാത്രവുമല്ല കൗതുക വാർത്തകളും എനിക്കിഷ്ട്ടമായതുകൊണ്ടുതന്നെ അത് ടിവിയിൽ അങ്ങനത്തെ വാർത്തകൾ വരുമ്പോൾ ഞാൻ കാണാറുണ്ട്